പ്രിയപ്പെട്ടവർക്കൊപ്പം ഉള്ള ഏത് വിനോദമാണ് നിങ്ങൾ ഏറ്റവും ആസ്വദിക്കുന്നത് പ്രിയ്യപ്പെട്ടവർക്കുള്ള വിനോദം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഫ്രണ്ട്സാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ ചുറ്റുക കറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ട്രിപ്പ് അത് അതാണ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നതും ഇഷ്ട ഉള്ളതും അതൊന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും നമ്മളെ എയിജ് കാറ്റഗറിയിലുള്ള ഒരേ സെയിം എയ്ജുള്ള അല്ലെങ്കിൽ കുറച്ച് ഡിഫറൻസ് അങ്ങട് ഇങ്ങടൊക്കെ ഉള്ള ആളുകളൂടെയുള്ള ഒരു വിനോദയാത്ര എന്ന് പറയുമ്പോൾ അത് ഭയങ്കര രസമായിരിക്കും അത്രയും ആസ്വദിക്കാൻ പറ്റിയ വേറൊരു സെറ്റപ്പ് ഇല്ല നമ്മൾ നോർമൽ യാത്ര പോവുമ്പോഴാണെങ്കിൽ പോലും വേറെ എന്തുദ്ദേശത്തിൽ യാത്ര പോവാണെങ്കിൽ വിനോദമല്ലാത്തതിന് വേറെ വിദേശയാത്ര പോവാണെങ്കിലും ഫ്രണ്ട് സെറ്റപ്പ് ഒരുമിച്ച് കൂടിയാൽ നമ്മൾ ശരിക്കും ആസ്വദിക്കും പല പല തമാശകൾ പറഞ്ഞും പല ദിൻസിഡൻസ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞും ഒരുപാട് ചിരിക്കാനുണ്ടാവും പിന്നെ നമ്മൾ മെയിനായിട്ട് പല പല ഏരിയാസ്സിൽ നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യും അതും നല്ലൊരു വെറൈറ്റി അനുഭവമാണ് ശരിക്കും ആസ്വദിച്ച് ലൈഫ് ആസ്വദിക്കാൻ പറ്റിയത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഫ്രണ്ട്സ് കൂടെ കഴിഞ്ഞിട്ടുള്ളൂ ഹോണെസ്ലി ഞാൻ പറയാണ് ഫ്രണ്ട്സ് കഴിഞ്ഞിട്ട് നമ്മുടെ ഫാമിലിൻ്റെ കൂടെ വരെ സ്പെൻഡ് ചെയ്യാൻ നമുക്കൊരു ഇൻട്രസ്റ്റുള്ളു ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ആഘോഷം അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ടൈമിങ്ങു ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആഘോഷിക്കുന്നത് ആസ്വദിക്കുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ട്രിപ്പാണെങ്കിലും ഇപ്പോൾ നമ്മളൊരുമിച്ചുള്ള പല ഗെയിംസുകളിൽ നമ്മളേർപ്പെടാറുണ്ട് ക്രിക്കറ്റ് ഫുട്ബോള് അതുപോലുള്ള കാര്യങ്ങളിൽ അതിൽ വരെ നമ്മൾ ഫ്രണ്ട്സ് എന്ന് ഉള്ള ആ കാറ്റഗറിയിലാണ് നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നതും ഓരോ ടൈം റ്റു ടൈം ഓരോ സെക്കൻഡ് നമുക്ക് ആസ്വാദകരമാവുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ ജീവിക്കുമ്പോഴാണ് അത് ഗെയിംസിന് ആണെങ്കിലും അല്ലാത്തത് ആണെങ്കിലും പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് പോകുന്ന സമയത്തും എന്നുപറഞ്ഞാൽ അത് ഭയങ്കര രസമാണ് അത് പറ്റുവെങ്കിൽ ഒറ്റ വെഹിക്കിളിൽ ഒറ്റ വണ്ടികളിൽ തന്നെ എല്ലാവരും ഒരുമിച്ച് പോവാന്ന് പറഞ്ഞാൽ അത്രയും ആസ്വാദകരമായിട്ട് വേറൊന്നില്ല അവിടെ എത്തിക്കഴിഞ്ഞാലും അവിടെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴും എല്ലാത്തിനും നമ്മളൊരു തമാശ കണ്ടെത്താൻ സാധിക്കും ഒരാസ്വാദനം നമുക്ക് ഫീൽ ചെയ്യും എന്ത് കാര്യത്തിനാണെങ്കിലും ഓരോ എവെരി മോമെന്റ്റ് ഏത് നിമിഷത്തിലും നമ്മൾ അവിടെ ആസ്വദിക്കയെന്നുള്ള ഒരു എലമെന്റസ്ലോട് കാല് ലൈഫ് പോകും പ്രത്യേകിച്ച് റീസൺ ഒന്നും വേണ്ട ഓരോ ടൈമിലും നമുക്ക് ചിരിക്കാനും അത് ജീവിതത്തിൻ്റെ ഒരു നല്ലൊരു മെമ്മറി ആയിട്ട് സൂക്ഷിച്ചുവെക്കാനും പറ്റിയ കാര്യങ്ങളായിരിക്കും ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് അത്രയൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അത്രയൊരു അത്രയൊരു സെറ്റപ്പും ഒരാസ്വാദനം നമുക്ക് വേറൊരു മേഖലയിലും ഫാമിലിൻ്റെ കൂടെയാണ് ഈവൻ ഫാമിലിയാണെങ്കിൽ പോലും നമുക്ക് കിട്ടൂല അപ്പോൾ ഇത് ട്രിപ്പ് എന്നല്ല വേറെ ഏത് രീതിയിൽ പോണെങ്കിലും ഇപ്പോൾ ഗെയിംസ് കളിക്കണെങ്കിലും ഇനിയിപ്പോൾ ഫിഷിങ്ങിന് പോണെങ്കിലും ഏത് ഏത് രീതിയിലോട്ട് പോണ് ഏത് ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടുകഴിഞ്ഞാലും ഫ്രണ്ട്സിൻ്റെ കുടെയുള്ളൊരു ആസ്വാദനം എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ആസ്വദിക്കുന്നത് നമുക്ക് പല പല ഒരുപാട് ഫോട്ടോസ് നമ്മൾ എടുത്തുവെക്കും അത് നമ്മൾ പിന്നീട് ഒരവസരത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും നമ്മുടെ ഫ്രണ്ട്സിനെ പിന്നെ ഓരോ സമയത്തും നമ്മൾ എത്തിപ്പെടുന്ന മേഖലകൾ പല പല ആളുകളായിട്ട് നമുക്ക് കൂട്ട് അവരുടെ ആ രീതിയിൽ നമ്മൾ അവരുടെ വേറൊരു ലോകത്ത് നമ്മൾ പോകുമ്പോൾ അവരുടേതായ ലോകത്തിൻ്റെ പല പല കാര്യങ്ങളും നമ്മൾ ഓരോ മൊമൻറ്റിലും നമ്മൾ ആസ്വദിക്കും പക്ഷേ നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ മറ്റ് ഫ്രണ്ട്സിൻ്റെ മറ്റൊരു മൊമൻറ്റ്സ് നമ്മൾ ആസ്വദിക്കാൻ ഏറ്റവും കൂടുതൽ ഒരു മിസ്സിങ്ങായി തോന്നുന്ന ഒരു ടൈമാണ് ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ളത് അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഏത് വിനോദം ആയിക്കോട്ടെ നമ്മൾ ആസ്വദിക്കാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ അത് ഏത് വിനോദം ഏത് മേഖലയെല്ലാം ട്രിപ്പാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഒരു മൊമൻറ്റ് അല്ലെങ്കിൽ ഒരു ഓ ഓരോ നിമിഷങ്ങളാണ് നമ്മൾ ആസ്വദിക്കുന്നത്